എൻ്റെ കുടുംബമൊന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃഷി രീതിയിൽ ബന്ധപ്പെട്ടു കുടുംബമാണ് എൻ്റെ അപ്പയാണെങ്കിൽ പശുനെയും ആടിനേയും കോഴിയൊക്കെ വളർത്തുന്നുണ്ട് ചെമ്പരിയാടുകൾ അങ്ങനെ ഇവിടെ വളർത്താനുള്ള പല ഇതല്ല അപ്പം നമ്മൾ കൂടുതലും നമ്മുടെ ക്ലൈമറ്റിന് അനുസരിച്ചുള്ള മൃഗങ്ങളെ വളർത്തി ഇപ്പം ഇപ്പം കുറുക്കനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണേ അവിടെ ചെമ്പരിയാടിനെ ഒന്നും വളർത്തിയിട്ട് പ്രയോജനമില്ല കോഴി ഒന്നും ഇപ്പം നമ്മടെ ആദായം എന്നു വച്ചാൽ നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചിരിക്കണം ഇപ്പം കഷ്ടപ്പെടാൻ മനസ്സുള്ള ഒരു വ്യക്തിക്ക് എത്ര മൃഗത്തെ വളർത്തിയാലും എന്നാണ് കുഴപ്പമില്ല ഇപ്പം അതിൻ്റേതായിട്ടുള്ള ബലം അത് തരും അതിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ അതും തിരിച്ചും സ്നേഹിക്കും ഇപ്പം പശുക്കളെ തന്നെ വളർത്തിയ ഒരു വ്യക്തിക്കാണേ തന്നെ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും എല്ലാമുണ്ട് പിന്നെ ആണേല് അപ്പം പശുവിൻ്റെ ഇതിൽ തന്നെ നമുക്ക് പല ലാഭങ്ങളും ഏർപ്പെടുത്താം ഇപ്പം പശുവിൻ്റെ പാൽ വിൽക്കാം അതിൻ്റെ ചാണകം നമുക്ക് വളമായിട്ട് ഉണക്കി ഉപയോഗിച്ചിട്ട് അത് വിൽക്കാം പല രീതിയിൽ ഇപ്പം പശുവിൻ്റെ അത് കൂടെ ഇപ്പം ഉപയോഗിച്ചു ഇപ്പം കോഴിയുടെ തന്നെയാണ് നമുക്ക് വേണേ മുട്ട വിൽക്കാം അതുപോലെ തന്നെ കോഴിയുടെ വേയ്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം അത് ഉണക്കി അതും വിറ്റ് വളമായിട്ട് ഉപയോഗിക്കാൻ നല്ല ഇത് കൃഷി അത് വളരെ ലാഭത്തിലേക്ക് എത്തുകയും തന്നെ ചെയ്യും പിന്നെ കോഴിയുടെ മുട്ട നാടൻ കോഴിക്കൊക്കെ ഇപ്പോൾ നല്ല വില ലഭിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ എല്ലാവരും അപ്പം അതാണ് പറഞ്ഞത് ആടിനാണ് തന്നെ ആട് പാൽ തരും അങ്ങനെ പല ഇപ്പം കൂടുതൽ ഞാൻ പറയുന്നത് ഒരു മൃഗത്തെ തന്നെ വളർത്തുന്നത് കുറച്ചും കൂടെ സമയം എളുപ്പമാണ് തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കഷ്ടപ്പാടും എല്ലാമുണ്ട് ഇപ്പം വളർത്താൻ ഏറ്റവും കൂടുതൽ എളുപ്പമെന്ന് പറയുമ്പം എന്താണ് കോഴിയെ തന്നെയാണ് പറയുക കാര്യം കോഴിക്ക് വേണ്ട തീറ്റ കൊടുത്താൽ മതി പിന്നീട് നമ്മൾ ചെറിയ കഷ്ടപ്പാടെന്ന് വച്ചാൽ അതിൻ്റെ മുട്ട എടുക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ആ വേയ്സ്റ്റ് വാരുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു കഷ്ടപ്പാടെ ഉള്ളൂ കൂടുതലും കോഴി വളർത്തുന്നതിൽ ഇപ്പം പശുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ പോച്ച പറിക്കണം അതുപോലെ തന്നെ അതിൻ്റെ ചാണകം വാരണം അതിനെ കറക്കണം അതുകൊണ്ട് പാൽ കൊണ്ട് സൊസൈറ്റിയിൽ കൊടുക്കണം അല്ലേ വീടുണ്ടെങ്കിൽ വീടുകളിൽ കൊടുക്കണം അതിന് ഒത്തിരി കഷ്ടപ്പാട് നമ്മൾ അനുഭവപ്പെടും പശു വളർത്തുന്നതിലൂടെ നമ്മൾ ഒത്തിരി കഷ്ടപ്പാട് അനുഭവപ്പെട്ടാലും അതിലേറെ ലാഭങ്ങൾ നമ്മൾക്ക് തരും പിന്നീട് ഇതിൻ്റെ തീറ്റകൾക്ക് വളരെ വില കൂടിവരുന്ന സമയമാണ് അപ്പം അതിന് അസരിച്ച് നമുക്ക് ലാഭം ലഭിക്കുന്ന ഒരു ഇതാണ് മൃഗം വളർത്തൽ എന്ന് പറയുന്നത് തന്നെ അപ്പം ഒന്നിലധികം മൃഗങ്ങളെ വളർത്തുന്നത് കഷ്ടപ്പാട് ഏറിയതാണേലും അതിലേറെ നമുക്ക് ലാഭങ്ങൾ കോയ് വരുത്താൻ സാധിക്കുകയും ചെയ്യും അപ്പം കൂടുതലും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ലാഭം നോക്കുവാനാണ് ശ്രമിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അപ്പം അവരാണെങ്കിൽ ഞാൻ പറയട്ടെ ഒരു മൃഗത്തെ തന്നെ വളർത്തുന്നതായിരിക്കും അതിനെ ഏറ്റവും കൂടുതൽ എന്താണ് പറയുക കെയറ് കൊടുത്തും പിന്നെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തും വളർത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബലം അത് തരും ഇപ്പ എല്ലാത്തിനും കൂടെ വളർത്തി നമുക്ക് അതും ഇല്ലാതാവും ഇതും ഇല്ലാതാവുമെന്നുള്ള ഒരു ചിന്ത വേണ്ടാതെ അതിന് ഒരു എണ്ണത്തിന് കൂടുതൽ പ്രിഫർ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ആക്സസ് നമുക്ക് അതിൽ നിന്നും കിട്ടും പിന്നീടാണെങ്കിൽ ഒരു എന്താണ് പറയുന്നത് ഇപ്പം അതാണ് പറയാനുള്ളത് ഇപ്പം ഒന്നിനെ വളർത്തുന്നതാണ് കൂടുതൽ നമ്മൾക്ക് സൗകര്യപ്രദം ഇപ്പം മൃഗം വളർത്തൽ ഞാൻ കൂടുതൽ നോക്കേണ്ടത് കൂടുതലും നമ്മൾ തയ്യാറെടുപ്പ് എടുക്കേണ്ടത് നമ്മൾ അതിൻ്റെ പരിസ്ഥിതി വൃത്തിയാക്കണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ നമ്മുടെ ലാഭത്തിനു വേണ്ടി മറ്റ് നമ്മുടെ അടുത്തുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തരുത് ഇപ്പം പശുവിൻ്റെ ചാണകത്തിന് നാറ്റമുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് അനുസരിച്ചുള്ള കമ്പോസേഷൻ കുഴിയും ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി അതിനായിട്ടുള്ള ഒരു ഇത് കൊടുക്കണം മറ്റുള്ള ഇപ്പം നമ്മൾ പശുവിനെ കൊണ്ട് മറ്റുള്ളവരുടെ പറമ്പിൽ കെട്ടുമ്പം അവരുടെ സാധനങ്ങൾ നശിപ്പിക്കാതെ അതിനെ നോക്കണം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തരുത് എന്നാണ് ഇതിനെ വരുമാന സ്രോതാസായി നമ്മക്ക് ആണെങ്കിലും ഞാൻ പറഞ്ഞതു പോലെ തന്നെ നമുക്ക് അതിനെ എന്നാൽ പറ്റും ഇപ്പം പശു വളർത്തുന്നതിലൂടെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എന്താണ് പാൽ പശുവിനെ വളർത്തി നമുക്ക് അതിന് അകത്ത് നിന്ന് പാൽ അതിൻ്റെ ആ ചാണകം വിറ്റ് നമുക്ക് കമ്പോസിഷൻ നടത്തണം